ഇപ്പം നമ്മളെ നാ നാ ഇപ്പം നാട്ടിൽ കൂടുതലായിട്ടും സ്കൂളുകളിൽ കണ്ടു വരുന്നത് സ്റ്റാമ്പ് കളക്ഷൻ അങ്ങനത്തെ കളക്ഷൻസ് ഒക്കെയുണ്ട് സ്റ്റാമ്പ് കളക്ഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ സയൻസിലൊക്കെ ഒരു ശാസ്ത്രമേള കാര്യങ്ങളൊക്കെ വയ്ക്കുമ്പോൾ നമ്മൾ സ്റ്റാമ്പ് കളക്റ്റ് ചെയ്തതൊക്കെ പഴയ സ്റ്റാമ്പ് മുതൽ പുതിയ സ്റ്റാമ്പ് വരെ കളക്റ്റ് ചെയ്യുക അത് നമ്മൾ അതായത് പ്രദർശിപ്പിക്കാൻ വേണ്ടി വയ്ക്കുക അപ്പോൾ നമുക്ക് ഓരോ കാര്യം നമുക്ക് ഇങ്ങനത്തെ സ്റ്റാമ്പുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ടെന്നൊക്കെ അറിയാൻ പറ്റും അപ്പോൾ അത് പുതിയ തല തലമുറയ്ക്കൊക്കെ കാണാനുള്ള സാധ്യതകൾ കൂടുതലാണ് അപ്പോൾ സ്റ്റാമ്പ് കളക്ഷൻ ഒക്കെ നല്ല രീതിയിൽ ചെയ്യുക പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാണയങ്ങൾ പഴയ നാണയങ്ങളും പുതിയ നാണയങ്ങളും എല്ലാം കൂടി കാണാൻ സാധിക്കുന്നു ഇപ്പോഴത്തെ ജന ജനറേഷനിൽ പഴയ അഞ്ഞൂറ് പു എന്താണ് പറയുക പഴയ നൂറ് അതൊന്നും ഇതുവരെ കണ്ടിട്ടുതന്നെ ഉണ്ടാവില്ല പഴയ ആയിരം അപ്പോൾ അതൊക്കെ നാണയങ്ങൾ പിന്നെ അണ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നാണയങ്ങളൊക്കെ ഉണ്ട് ഇരുപത് പൈസ അങ്ങനത്തെ പൈസകളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ കളക്റ്റ് ചെയ്തിട്ട് നമ്മൾ ഒരു സയൻസ് എക്സിബിഷനിലൊക്കെ നമ്മൾ ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കും ഇപ്പോൾ ഇപ്പോഴത്തെ തലമുറ തലമുറയ്ക്കൊന്നും അത് കണ്ടിട്ടു തന്നെ ഉണ്ടാവില്ല ആ അപ്പോൾ അതൊക്കെ ചെയ്യാറുണ്ട് വിദ്യാഭ്യാസത്തിന് നല്ലൊരു മൂല്യം അത് കൽപ്പിക്കുന്നുണ്ട്